അതേയല്ലോ

ഉള്ളിവട ഉണ്ട് ഉഴുന്ന് വട ഉണ്ട് ആ കേക്ക് ഉണ്ട് വട്ടയപ്പം ഉണ്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കൊണ്ട് വന്ന് തരണോ അതോ വന്ന് വേടിക്കുമോ മ്മ് കൊണ്ട് തരാം

കൊണ്ട് തരും ഓക്കെ വട്ടയപ്പം മാത്രം മതിയോ ഉഴുന്ന് വട ഉള്ളിവട ചൂടുള്ളത് ഉണ്ട് അത് വേണോ ഉള്ളിവട ഉഴുന്ന് വട ചൂടുള്ളത് ഉണ്ട് വട്ടയപ്പം മാത്രം മതിയോ എന്നാണ് ചോദ്യം സുഖിയൻ വേണോ

എല്ലാം എത്രയെണ്ണം വേണം എന്ന് ഒന്ന് കൂടെ പറയാമോ എഴുതി എടുക്കാനാണ്

ആ ആ ഉള്ളിവട ആ സുഖിയനും ഉള്ളിവടയും എത്രയെണ്ണം വച്ച് വേണം

അപ്പം വട്ടയപ്പം വേണ്ടെ വട്ടയപ്പം വേണമെങ്കിൽ ഒരു പത്തെണ്ണം വച്ചേക്കാം നല്ലതാണ് ചൂടോടെ ഉണ്ടാക്കുന്നാ

വീട്ടിൽ കൊണ്ട് തരുമ്പം പൈസ വേണോ അതോ ഇവിടെ കൊണ്ടുതരുമോ മ് മ് ആ ഏകദേശം ഒരു അറുന്നൂറ് രൂപ ആകുവേ

ഓക്കെ